വിവിധതരം കലാരൂപങ്ങള് സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം പഠിപ്പിക്കുന്നുണ്ട് അസംഷന് കോളേജ് എസ് ബി കോളേജ് എന് എസ് എസ് സെന്റ് തോമസ് യു പി സ്കൂള് ചമ്പക്കൊളം അവിടെയെല്ലാം സ്കോ കുട്ടികളെ നൃത്ത രൂപം നൃത്തങ്ങള് പഠിപ്പിക്കുന്നുണ്ട് ആണ് പെണ് വ്യത്യാസമില്ലാതെ അവർ എല്ലാ കുട്ടികളെയും വിവിധ തരം കലാരൂപങ്ങള് കലാ പരി കലാപരിപാടികള് അവരെ പരിശീലിപ്പിക്കുന്നുണ്ട് സര്ഗ്ഗ ക്ഷേത്ര എന്ന സ്ഥാപനത്തില് അനേകം വിദ്യാര്ത്ഥികള് നൃത്ത പരിശീലനം അഭ്യസിക്കുന്നുണ്ട് സ്കൂളുകളില് കുട്ടികള്ക്ക് ഒരു പീരിഡ് തന്നെ ന് നൃത്തം ഇപ്പോൾ പഠിപ്പിക്കാനായിട്ടൊരു പിരീഡ് തന്നെ ഉണ്ട്